ഞാനാണെങ്കിൽ ഓൺലൈനിൽനിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചേ ഭയങ്കര പഞ്ഞിയായിരുന്നു കാരണം അതാണെങ്കിൽ വളരെ മോശമായിട്ടാണ് അതിൻ്റെ പാക്കിങ്ങും അത് കിട്ടിയതുപോലും ഭയങ്കര പഞ്ഞിയായിട്ടായിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ വീട്ടിൽ അപ്പയ്ക്കു വേണ്ടിയൊരു ഷേവിംങ് സെറ്റ് വാങ്ങിച്ചു ഷേവിംങ് സെറ്റ് ആണെങ്കിൽ ഉപയോഗിച്ച ഷേവിംങ് സെറ്റ് തന്നിരിക്കുകയാണ് ആൻ് അത് വളരെ മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നു പറഞ്ഞാൽ ചോദിച്ച സാധനവും അല്ല പുതിയ സാധനവും അല്ല വന്നിരിക്കുന്നത് പഴയ ഒരു സാധനം വന്നിരിക്കുകയാണ് അപ്പോഴേക്കും ഭയങ്കര മോശം അഭിപ്രായമായി അതിനോട് പിന്നെയാണെങ്കിൽ പണ്ട് എപ്പോഴോ എന്തൊരു ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ട് ഒരു പന്ന ഹെഡ്സെറ്റ് വന്നു പിന്നെ ഞാൻ ഒരു പ്രാവശ്യമാണെങ്കിൽ വേറെ ഒരു ഉടുപ്പ് വേറെ മൂന്ന് ഉടുപ്പൊന്നിച്ച് ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് ഞാൻ പൈസയും അടച്ചു എന്നിട്ടുപോലും എനിക്ക് ആ പ്രോഡക്റ്റ് വന്നില്ല അതുകൊണ്ടുതന്നെ എനിക്ക് ഭയങ്കര നെഗറ്റീവ് എക്സ്പീരിയൻസാണ് ഓൺലൈനിൻ ഷോപ്പിങ്ങിനെക്കുറിച്ച് കിട്ടിയത് ഒരു പ്രൊഡക്ടിനെക്കുറിച്ച് പറയാൻ പറഞ്ഞ് കുറേ പ്രൊഡക്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ സന്തോഷമായില്ലേ